ഞങ്ങളെ പ്രദേശത്തെ ആൾക്കാർ വായനശാലകൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നതായിട്ട് എനിക്ക് പലതരത്തിലും തോന്നിയിട്ടില്ല കാര്യം വായനശാലകൾ നമ്മുടെ ഈയൊരു പ്രദേശത്ത് ഞങ്ങൾ താമസിക്കുന്ന അറുന്നൂറ്റമ്പ ടൗണെന്ന പ്രദേശത്ത് വളരെയേറെ കുറവാണ് എന്നാലും കൂടുതലായിട്ട് ആൾക്കാർ വായനശാലാകളെക്കാൾ ഉപരി ചില ചില പുസ്തക കടകളെയാണ് ആശ്രയിക്കുന്നത് അങ്ങനെ പുസ്തക കടകളിൽ പോയ് കൂടുതലായിട്ടും അതും സിറ്റി കേന്ദ്രങ്ങളിൽ മാത്രമാണ് കൂടുതൽ ഇങ്ങനത്തെ പുസ്തക ശാലകളുള്ളത് അപ്പോള് അവിടെപ്പോയി കൂടുതലായിട്ടും പുസ്തകങ്ങൾ വായിക്കാന് അങ്ങനെ പുസ്തകങ്ങളെക്കുറിച്ച് അറിയാനും അങ്ങനെ പുസ്തകങ്ങൾ വായിക്കുവാനുമായിട്ടുള്ള ഒരു രീതിയിലാണ് ഈയൊരു കാലഘട്ടത്തിന് ഞങ്ങളുടെ സമൂഹത്തിലുള്ളവര് ചെയ്യുന്നത് എൻ്റെയൊരു സ്കൂൾ കാലഘട്ടത്ത് പഠനകാലത്ത് ഞാൻ ലൈബ്രറിയില് ഒരു ഏകദേശം ഒരു ആഴ്ച്ചയിൽ ഒര് രണ്ടു മൂന്ന് ദിവസം ഒരു മണിക്കൂര് വീതം ഞാൻ ലൈബ്രറിയില് ചെലവഴിക്കാറുണ്ട് കൂടുതലായിട്ടും പുസ്തകങ്ങളെ അറിയുവാനും കൂടുതൽ പുസ്തകങ്ങൾ വായിക്കുവാനും വായിക്കുവാനും ഞാൻ ഞാൻ വളരെയേറെ സമയം കണ്ടെത്തിയിട്ടുണ്ട് പുസ്തകങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പല രീതിയിൽ ഒട് വ്യക്തിത്വത്തെ നമുക്ക് വളരെയധികം നമ്മളെ സഹായിക്കുന്നുണ്ട് നമ്മുടെ ലോകത്തെക്കുറിച്ചുള്ള കാഴ്ച്ചപ്പാട് നമ്മള്ക്ക് ലോകത്തെ കൂടുതലായിട്ടും മനസ്സിലാക്കുവാനും പലതരത്തിലുള്ള വ്യക്തികളുടെ ജീവിതങ്ങളും പലതരത്തിലുള്ളെ വ്യക്തികളുടെ ജീവിത സാഹചര്യങ്ങളും അവരുടെ ജീവിത മേഖലകളും മനസ്സിലാക്കാനും നമ്മളെ പുസ്തകം സഹായിക്കാറുണ്ട് അത് കൂടുതലായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമ്മുടെ ഒരു കാഴ്ച്ചപ്പാടിനെയാണ് പുസ്തകങ്ങൾ വായിക്കുന്നത് നമ്മള്ക്ക് അറിവുകൾ വര്ധിപ്പിക്കാൻ മാത്രമല്ല ലോകത്തെ കൂടുതൽ മനസ്സിലാക്കാനുള്ള ലോകത്തിൻ്റെ ആയിട്ടുള്ള വ്യക്ത്വ വ്യക്തിത്വ രീതികൾ മനസ്സിലാക്കാനും മറ്റുള്ളവരുടെ വ്യക്തിത്വത്തെ കൂടുതലായിട്ടും മനസ്സിലാക്കാനും വേണ്ടിയാണ് അങ്ങനെ നമ്മള്ക്ക് ഏതു തരത്തില് പുസ്തകങ്ങള് നമ്മളെ സഹായിക്കാമെങ്കിലും ഏതു തരം പുസ്തകങ്ങളാണ് എന്നെ സഹായിക്കുന്നേന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ ജീവിത ചരിത്രങ്ങളാണ് കൂടുതലായിട്ട് മറ്റുള്ളവരുടെ ജീവിത ചരിത്രങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിനും അത് പ്രാവർത്തികമാക്കുവാനും അങ്ങനെ നമ്മള്ക്കും നല്ല രീതിയിൽ മുമ്പോട്ട് പോ വളരുവാനോ നമ്മുടെ ജീവിതത്തെ കൂടുതലായിട്ട് വളത്തിയെടുക്കുവാനോ നമ്മളെ സഹായിക്കുന്നുണ്ട് ആ ഈയൊരു ആധുനിക കാലഘട്ടത്തിൽ പഴ പഴയ രീതിയിലുള്ള രീതിയില് ജീവിച്ചവരുടെ ജീവിത രീതികൾ അവരുടെ എളിമ് ലാളിത്യം നിറഞ്ഞ രീതികൾ നമ്മളെതായി അങ്ങനെ നമ്മള്ക്ക് ജീവിതത്തെ കൂടുതലായിട്ടങ്ങ് ഓർത്തിരുന്നാണ് ജീവിതം മുമ്പോട്ട് പോവാൻ നമുക്ക് സഹായകമാവുന്നത്